ഞാനുദ്ദേശിച്ച കറിയിൽ ഉപ്പാണ് കൂടിയതെങ്കിൽ അതിലേയ്ക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പില്ലാതെ മുറിച്ച് പുഴുങ്ങി അതിൻ്റെ ഇടും എരിവാണ് കൂടിയതെങ്കിൽ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ചേർത്തരച്ച് ആ കറിയിലേയ്ക്ക് ചേർക്കും അപ്പം എരിവ് കുറയുകയും ചെയ്യും എന്തെങ്കിലും മസാലയാണ് കൂടിയതെങ്കിൽ രണ്ട് വെളുത്തുള്ളി നടുവേ കീറി അങ്ങ് ഇട്ടു കൊടുത്താൽ മതി ഉപ്പാണ് കൂടിയതെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയും ഇടാം പച്ചയ്ക്കും ഇടാം ഞാൻ കൂടുതലും പുഴുങ്ങിയാണ് ഇടാറ് എരുവു കൂടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ തേങ്ങ അരച്ചു ചേർത്ത് കറി തിളപ്പിച്ചെടുക്കലാണ് പതിവ്